ആദ്യമായി തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വൃത്തിഹീനമായിട്ടാണ് ഉള്ളത് നമ്മുടെ ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ വലിച്ചെറിഞ്ഞും റോഡുകളിലും അവിടേം ഇവിടേം മാലിന്യങ്ങളൊക്കെ ഇട്ട് നശിപ്പിക്കുകയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുവാനുള്ള റോഡുകളൊക്കെ കുണ്ടും കുഴിയും നിറഞ്ഞതും ഗതാഗത കുരുക്കൊക്കെ വന്നിട്ടുള്ളതും മറ്റുള്ളോർക്ക് മടുപ്പ് വരുന്നതോ അതുകൊണ്ട് റോഡ് റോഡുകൾ കുണ്ടും കുഴിം ഒക്കെ ഇതാക്കി നല്ല വൃത്തി ഉള്ളതാക്കുക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വൃത്തി ഉള്ളതാക്കുക അവിടെ വിദേശ സഞ്ചാരികളെ ആകർഷിക്കാനുള്ള പലതും സൃഷ്ടിക്കുക യാത്രകളൊക്കെ പോകുമ്പോൾ പല ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട് ഒരു വഴി ഇടങ്ങളോ ഒന്നും ഇല്ലാത്ത അവസ്ഥ എവിടെങ്കിലും പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിക്കണമെങ്കിൽ കാട്ടിലോ അവിടെ ഇവിടെയോ ഇരിക്കണ്ട അവസ്ഥ പലതും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് വഴിയിടങ്ങളൊക്കെ ഉണ്ടാക്കുക നല്ല റോഡുകൾ സൃഷ്ടിക്കുക നല്ല വൃത്തിഹീനമായ അതിൽ നിന്ന് വൃത്തി ഉള്ളതാക്കുക വൃത്തിഹീനമായി കിടക്കുന്നതൊക്കെ വൃത്തി ഉള്ളതാക്കുക നല്ല നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി എല്ലാം നല്ല രീതിയിൽ ചെയ്യുക